ഹലോ ആ ഹലോ പറഞ്ഞോളൂ എന്തു പറ്റി ഹലോ കേൾക്കുന്നില്ലേ ആ ഇത് ഫുഡ് വളരെ മോശമാണല്ലോ ഇവിടെ തന്നിരിക്കുന്ന ഫുഡ് വളരെ മോശമാണ് എന്തു പറ്റി ആ ഫുഡിവിടെ തന്നിരിക്കുന്ന ചോറിൻറ്റൂടെ തന്നിരിക്കുന്ന സാമ്പാറ് ശരിയല്ല പിന്നെ മോരാണേൽ ഒരു മാതിരി പുളിച്ച് പുളി അധികമായി പോയി അത് കൊണ്ട് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇത്

നിങ്ങൾ സാമ്പാറിനകത്ത് ആദ്യം എന്താണ് ചെയ്യുന്നത് ഇല്ല എനിക്ക് എന്ത് നിങ്ങളെന്ത് യൂസ് ചെയ്താലും എനിക്ക് നല്ല സാമ്പാറ് കിട്ടുക അതാണെൻ്റെ അല്ല ഇപ്പോൾ ഇങ്ങനെ സംഭവിച്ച് പോയല്ലോ ഇതെന്തുകൊണ്ടാണ് എന്നാണ് ഞാൻ ചോദിക്കുന്നത് അല്ല ഇതിപ്പോൾ ഞാൻ ഞാൻ ഇപ്പോൾ ഒരു കമ്പ്യൂട്ടറിനോട് ചോദിച്ചാലും അതിങ്ങനെ ഫീഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതേപോലെ ആ അത് പറയും അതുപോലാണല്ലോ ഇപ്പോൾ സംസാരിക്കുന്നത് അല്ലാതെ റെഗുലറായിട്ടെനിക്ക് അല്ലാതെനിക്ക് കറക്റ്റായിട്ടൊരുത്തരം ഇതുവരെ കിട്ടിയില്ല എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്ന് കിട്ടിയില്ല കാരണം മനസ്സിലായില്ല

അല്ല സാമ്പാറ് പോട്ടെ ഇനിയും ആ മോരിനെന്ത് പറ്റി പോലും രണ്ട് സാധനം ഒരുമിച്ച് മോശമാണെന്ന് പറയുമ്പോഴത്തേക്ക് എന്തു പറ്റി എന്നത്

ഓക്കെ അത് സാമ്പാറ് പോയി പുളി പുളി അത് പുളിച്ചു മോര് പോയി ഇത് പിന്നെ ചോറിനെന്ത് പറ്റി ആ ഈ പ്രാവശ്യം ഞാൻ കഴിച്ചിരിക്കണവല്ലോ കളയാൻ സാധിക്കില്ലല്ലോ അടുത്ത പ്രാവശ്യം പണി മാറ്റി തരാന്നാണോ പറയുന്നത് ഓ ശരി അടുത്ത പ്രാവശ്യമെങ്കിലും നല്ല ഫുഡ് തരണം ശരി എന്നാൽ ഓക്കെ